കായികം ഞങ്ങൾ ഐ യൂഷ്യലി മേക്കിങ് ഗ്രീറ്റിങ് കാഡും കത്തൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർക്കെല്ലാം അതുപോലെ തിരിച്ചും നമുക്ക് ഗ്രീറ്റിങ് കാഡൊക്കെ കിട്ടിയിട്ടുണ്ട് ബൈ ഹാൻഡ് ബൈ ഹാൻഡ് സൊ പിന്നെ ക്ലേ ഉപയോഗിച്ചിട്ടുള്ള മോഡൽസ്സുണ്ടാക്കിയിട്ടുണ്ട് ലൈക് ഒരു സ്ക്കുരൽ പിന്നൊരു ബേഡ് അതൊക്കെ യൂഷ്യലി നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അത് ഫോർ ഷോ പർപ്പസ് ഒൺലി പിന്നെ കൈകൊണ്ട് നിർമ്മിച്ച കല നല്ലതാണ് ഇഷ്ടമാണ് ഇപ്പോഴും നമ്മളൊരു സ്വയം ക്രാഫ്റ്റ് ചെയ്യുകയോ വിഗ്രഹമുണ്ടാക്കുകയോ ലെറ്ററെഴുതുകയോ ക്ലേ ഉപയോഗിച്ച് ഒരു മോഡലുണ്ടാക്കൊക്കെ ചെയ്യുന്നത് ഈസ്

അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ് ടെൻഷനൊക്കെ കുറച്ച് നേരത്തെങ്കിലും നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ക്ലേ ഉപയോഗിച്ച് മോഡൽസും വിഗ്രഹവും അതുപോലെ യൂഷ്വലി മാല കമ്മൽ അങ്ങനത്തെ ഫാൻസി ഐറ്റംസുണ്ടാക്കുന്നതും പിന്നെ ക്രാഫ്റ്റ് പേപ്പറുപയോഗിച്ച് ഫ്ലവർ ബൊക്കെയൊക്കെ ഉണ്ടാക്കുക ഗ്രീറ്റിങ് കാഡുണ്ടാക്കുന്നവർ കത്തുകൾ മുതലായവയൊക്കെ ഉണ്ടാക്കുന്നവർ ഇന്ന് കുറേ ടൈം പാസ്സായിട്ടും സെൽഫ് സാറ്റിസ്ഫാഷന് വേണ്ടി തുടങ്ങിയവരൊക്കെ ഒത്തിരി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവെൻസും കൂടി വഴി സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗമൊക്കെ ആക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടുതൽ ഇന്നത്തെ കാലത്ത് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും കൈകൊണ്ട് നിർമ്മിച്ച കല വളരെ നല്ലതാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്കൊത്തിരി ക്വാളിറ്റീസ് അതുവഴി ഉണ്ടാകുന്നുണ്ട് ഇ ഇപ്പം നമ്മളൊരു മണ്ണിൻ്റെ കലമായിക്കോട്ടെ ചട്ടി ആയിക്കോട്ടെ നമ്മളുപയോഗിക്കുന്നത് പണ്ടത്തെ അന്ന്യം നിന്ന് പോയികൊണ്ടിരിക്കുന്ന ഒന്നാണ് അവർ അത് മണ്ണിൽ മോൾഡ് ചെയ്തെടുത്ത് അതിൻ്റേതായ കുറേ പ്രോസസ്സ് വഴി നമുക്ക് മുമ്പിൽ ലഭിക്കുന്നത് സൊ അതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി അപ്പോഴുമുണ്ടാകും സൊ കൈകൊണ്ട് നിർമ്മിക്കുന്ന കല എപ്പോഴും നല്ലതു തന്നെയാണ്